ആളുകൾ പട്ടണത്തിൽ ജീവിക്കാൻ താൽപര്യപ്പെടുന്നത് കൊണ്ട് യുവതലമുറ അവർക്കനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നഗരത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി ആയിരിക്കില്ല പട്ടണത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിത രീതികളും ചിന്താഗതികളെല്ലാം വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടന്നെ ജീവിത പങ്കാളിയെക്കിട്ടാൻ ബുദ്ധിമുട്ട് കൂടുതലാണ് കാരണം നാട്ടും പ്രദേശത്ത് നിന്ന് നഗരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് നഗരവുമായി ബന്ധപ്പെടാൻ വളരെ പ്രയാസമാണ് അവർക്കതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇപ്പോഴത്തെ തലമുറക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണങ്ങളോടൊന്നും വലിയ താൽപ്പര്യമില്ലാത്ത ചിന്താഗതിയാണ് കാരണം അവർക്ക് കൂടുതൽ പഠിക്കാനും ഹയർ സ്റ്റഡീസിന് പോകാനും കറിയറ് ബിൽഡ് അപ്പ് ചെയ്യാനായിരിക്കും അവരുടെ താൽപ്പര്യം അതുകൊണ്ടന്നെ കല്യാണങ്ങളോട് എല്ലാം എതിർപ്പായിരിക്കും കൂടുതലും അതുകൊണ്ടന്നെ നഗരത്തിലുള്ളവർക്ക് പട്ടണത്തിലുള്ള ആളുകളായിട്ട് ഇൻട്രാക്ററ് ചെയ്യാനും അവരുടെ ചിന്താഗതി വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടന്നെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്